ഞങ്ങളുടേത് ഒരു കൊച്ചു ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ ഒരു ലൈബ്രറി ഉണ്ട് ആകെ ആകെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ഒരു ലൈബ്രറി മാത്രമേ ഉള്ളൂ അവിടെ ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ച്ചയിൽ ഒരു ദിവസം ഞാൻ പോകാറുണ്ട് അവിടെ നല്ല നല്ല പുസ്തകങ്ങളുണ്ട് അത് വായിക്കാറുമുണ്ട് പിന്നെ വീട്ടിൽ പിന്നെ ഒരു ലൈബ്രറി ഞാൻ ആന് ചെറിയ ചെറിയ രീതിയിൽ പല എനിക്ക് അധികം ബുക്ക് കളക്ഷൻസ് ഉണ്ട് ഞാൻ കുഞ്ഞ് സ്കൂൾ കാലം തൊട്ടേ ഞാനതിൽ പല പല ബുക്കുകൾ പല പല നോവലുകൾ പലരുടേതായ നോവലുകൾ കഥകൾ പിന്നെ കവിതകൾ അങ്ങനെ ഒരു ശേഖരണം എനിക്കുണ്ട് അത് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു എൻ്റെ ഒരു സ്വപ്നമെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഗ്രാമത്തിൽ ഈ ഒരു ലൈബ്രറി ഇപ്പം ചെറിയ രീതിയിലാണ് അത് നടക്കുന്നത് അതിന് കുറച്ച് വിപുലകരമായ രീതിയിൽ കുറേയധികം പുസ്തകങ്ങളും കാരണം ഒന്ന് രണ്ട് കളക്ഷൻസ് നമുക്കിവിടെ കുറവാണ് കുറച്ചാൾ അധികം ആൾക്കാർക്ക് വരാൻ പറ്റുമ്പോൾ വരാൻ വരും വരുമ്പോൾ പലർക്കും ആ ബുക്കുകളൊന്നും കിട്ടാറില്ല അങ്ങനെ അവസരങ്ങൾ നാശ് നഷ്ടപ്പെട്ട് പോകാറുണ്ട് അപ്പോൾ അതിലേക്ക് കുറേ സംഭാവനകൾ ആരെങ്കിലുമൊക്കെ നൽകി അത് കുറേയധികം ലൈ ബുക്ക്സ്കളൊക്കെ വെച്ച് ഒരു അആ ലൈബ്രറി ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരണമെന്ന് ഞാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് കാരണം നമുക്കെന്ന് വെച്ചാൽ പിന്നെ ലൈബ്രറി കുഞ്ഞ് കുട്ടികൾ തൊട്ടേ ആ ലൈബ്രറിയിൽ പോയി കുറച്ച് പുസ്തകങ്ങളെടുത്ത് വായിക്കുന്നതും ആ ഒരു ഇതും കാണുമ്പോൾ ഒരുപാട് മനസ്സിലേറെ സന്തോഷം തോന്നാറുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ലൈബ്രറി പോകാനൊന്നും ഒരു സമയമില്ല കാരണം എല്ലാവരും മൊബൈലിൽ ആ ഒരു മൊബൈലിലും ആ സോഷ്യൽ മീഡിയയിലും അങ്ങനെ അതിൻ്റെ പുറകേ പോകുന്നത് കാരണം ഈ ലൈബ്രറിയിലേക്കുള്ള സന്ദർശ്ശനവും അവിടുന്ന് ബുക്ക് എടുത്ത് വെച്ച് വായിക്കുന്നതും ഒക്കെ ഒരു കുറേ കുറച്ച് പിന്നെ കുറവായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് എങ്കിലും ഞങ്ങളുടെ നാട്ടിൽ കുറേയധികം ആൾക്കാർ പ്രായമായവരുണ്ട് പിന്നെ ചെറുപ്പക്കാർ ഉണ്ട് അവർക്ക് കുറച്ച് താല്പര്യങ്ങൾ ഉള്ളവരുണ്ട് അവർ ഒരാഴ്ച്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ അവരുടെ ജോലി അവധിയുള്ള ദിവസം ഒരു ഒന്ന് രണ്ട് മണിക്കൂറുകൾ വന്ന് പുസ്തകം എടുത്തുവെച്ച് വായിക്കുന്നത് കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം തോന്നാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്വപ്ന ലൈബ്രറി എന്ന് പറയുന്നത് കാരണം ആ ലൈബ്രറിയിൽ കുറേ ആളുകൾ വന്ന് പുസ്തകങ്ങൾ എടുത്തുവെച്ച് വായിക്കുന്നതും കുറേ പുസ്തകങ്ങളുടെ ശേഖരണം ഉണ്ടാകുന്നതും ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്വപ്നമെന്ന് പറയുന്നത് എന്നെ പോലെ തന്നെ ഒത്തിരി പേരിവിടെ ഇതുപോലെ ഒരു സങ്കല്പം സ്വപ്നം കണ്ട് നടക്കുന്നവരുണ്ട് താല്പര്യമുള്ളവർ ഉണ്ട് അവർക്കൊക്കെ ഇങ്ങനെയൊരു ഈ ലൈബ്രറി നന്നായി വളർന്ന് നല്ല രീതിയിൽ തലമുറയിൽ ഭാവിയിലും ഇതും തുടർന്നുകൊണ്ട് പോകണമെന്ന് അങ്ങനെയൊരു നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള അധികം ആൾക്കാരും ഇതൊരു ഗ്രാമ പ്രദേശമാണ് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ഇപ്പോഴും കുറച്ച് വയസ്സിന് വയസ്സ് മൂത്ത കാരണവന്മാർ ഇപ്പോഴും അവർ വന്ന് കുറേ സമയം അവിടെ ഇരിക്കാറുണ്ട് അവർ അവിടെ ഇരുന്ന് കഥകളും കാര്യങ്ങളും ഇതൊക്കെ വായിച്ച് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് ഇതിലെ കഥകളൊക്കെ പറഞ്ഞ് കൊടുക്കുന്നും ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് പിന്നെ ഹാ പിന്നെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ലൈബ്രറിയിൽ ഞാനിപ്പം പിന്നെ പണ്ട് കുഞ്ഞ് നാളിലേ വെച്ചിരിക്കുന്ന ലൈബ്രറി ബുക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട് അതൊക്കെ കാണുമ്പോൾ മനസ്സിന് ഒത്തിരിയേറെ സ്പർശ്ശിക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ ഈ ലൈബ്രറി ലൈബ്രറി ഒരു നമ്മുടെ ഒരു നമ്മുടെ സമൂഹത്തിനും ന്നെ നമ്മുടെ ഭവനത്തിലും ഉള്ളവർക്ക് എല്ലാവർക്കും ഈയൊരു ലൈബ്രറി വരുന്നത് ഉള്ളത് കാരണം ഒത്തിരി പിന്നെ സന്തോഷം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിക്കുന്നതോട് കൂടി അതിന് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലൈബ്രറിയിലൂടെ ലൈബ്രറിയിൽ പോകുന്നതിലൂടേയും ലൈബ്രറി പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഈ ഇതുപോലെ തന്നെ ഒരു നന്ന ഒരു നല്ല ഒരു സ്വപ്ന ലൈബ്രറി എന്ന് പറയുന്നത് അതിൽ കുറച്ച് പുസ്തകങ്ങൾ കൂടി വരുത്തി നല്ല രീതിയിലുള്ള കഥകളും നല്ല ഇത് കുറച്ചുകൂടെ ഡെവലപ്പ് ആകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം